ഒരുപാട് മനോഹരമായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ക്രിക്കറ്റ് ഫീൽഡിൽ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് രക്തത്തിൽ അലിഞ്ഞ് ചേർന്ന ഒരു തലമുറയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളും ഞങ്ങൾക്ക് ജീവിതം ഏറ്റവും കൂടുതൽ മനോഹരമാക്കി ഇരുന്നത് ക്രിക്കറ്റ് തന്നെയാണ് അപ്പോൾ അവധി ദിവസങ്ങളെന്ന് വച്ച് കഴിയുമ്പോൾ എല്ലാ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കളിക്കാനായി ഗ്രൗണ്ടിൽ എത്തും കാരണം പ്രായഭേദമന്യേ ഏകദേശം കൊച്ച് കുട്ടികൾ മുതൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതൽ നാൽപ്പത് വയസ്സുള്ള അതായത് കുടുംബം നടത്തുന്ന ചേട്ടന്മാർ ഉൾപ്പെടുന്ന ഒരു വളരെ വലിയ ഗ്യാങ്ങാണ് ഞങ്ങളുടെ ഇപ്പം അവധിയിൽ തന്നെ ഞങ്ങൾ രണ്ട് ടീം ഉണ്ടായിരുന്നു അതായത് സിറ്റി ലങ്ക എന്ന് പറയുന്ന രണ്ട് ടീമാണ് അപ്പോൾ എന്നും വാശിയാണ് ഞങ്ങൾ സിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം ലങ്കക്കാരെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതലക്ഷ്യമായി ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് അപ്പം അ എല്ലാ ദിവസവും ഭയങ്കര വാശിയിലാണ് കളി തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് വച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കളിക്കുന്നതിന് ഇടയ്ക്ക് കളി വളരെ വാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ആരോ അടിച്ച ബോള് തെങ്ങിൻ്റെ മേളിൽ പോയി അപ്പം കളി വളരെ ടൈറ്റ് ആയി നിൽക്കുന്ന അവസ്ഥ കളി സമനിലയാണ് ഒന്നേ ഒന്നിൽ നിൽക്കുകയാണ് അപ്പം ഫൈനലാണ് ഈ കളി ജയിക്കുന്നവർ മാത്രം ജയിച്ചാലാണ് ജയിക്കുന്നവർക്ക് ആണ് പേര് കാരണം അവരുടെ മുന്നിൽ തോൽക്കാതിരിക്കാനായിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകും അപ്പം ഞാൻ ഞങ്ങളുടെ ബാറ്റിങ്ങിന് ഇടയ്ക്കാണ് അപ്പം ഒരു ബോള് ബാറ്റ്സ്മാൻ അടിച്ചു നേരെ പോയത് ഒരു തെങ്ങിൻ്റെ മേളിലാണ് അപ്പം അന്നൊരു സൺഡേ ആണ് അപ്പം ബോള് മേടിക്കാനായിട്ട് വേറെ വകുപ്പൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കളി അതോടെ അവസാനിക്കും കാരണം ഏകദേശം പിന്നെ ഞങ്ങൾക്ക് പുതിയ ബോള് കിട്ടുക എന്നുള്ളത് പിന്നെ ദുഷ്കരമാണ് കാരണം അടുത്തെങ്ങും കടയില്ല അതുമല്ല സൺഡേ ആണ് ഞായറാഴ്ചകളിൽ പൊതുവെ കടകളൊന്നും പ്രവർത്തിക്കാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കളി നിർത്തി പോയേക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോഴേക്കും ആണ് അക്കൂട്ടത്തിൽ ഒരു ചേട്ടൻ അങ്ങനെ ഇപ്പം കളി നിർത്തി പോകുന്നില്ല നമ്മൾ ബോൾ എടുക്കുമെന്ന് പറഞ്ഞു കൊണ്ട് പുള്ളി ആ തെങ്ങിലേക്ക് വലിഞ്ഞ് കയറി ആ നല്ല മഴയൊക്കെയുള്ള സമയമാണ് പക്ഷേ ആ മഴയത്തും പുള്ളി ആ തെങ്ങിലേക്ക് വലിഞ്ഞ് കയറാനായിട്ട് കാണിച്ച ഒരു മനസ്സുണ്ട് അതും ആ തെങ്ങിൽ തിരിച്ച് ജീവിതം തന്നെ ജീവൻ തന്നെ അപകടത്തിൽ ആകാവുന്ന സന്ദർഭങ്ങളാണ് പക്ഷേ ആ കളിയോടുള്ള ആ ഒരു പാഷനെന്ന് തന്നെ പറയാം ആ പാഷൻ കാരണം ആ ചേട്ടൻ തെങ്ങിൽ വലിഞ്ഞ് കയറുകയും ആ ബോൾ എടുത്തു പക്ഷേ എന്നിട്ട് തിരിച്ച് ഇറങ്ങാൻ അയാൾക്ക് കയറിപ്പോകാൻ എളുപ്പമായിരുന്നു പക്ഷേ പുള്ളിക്കാണെങ്കിൽ തിരിച്ച് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല തിരിച്ച് ഇറങ്ങാൻ അയാൾ പല വഴികളും നോക്കി പക്ഷേ പറ്റുന്നില്ല അപ്പോൾ താഴെ നിന്ന ഞങ്ങൾക്ക് എല്ലാം പേടിയും ആയി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോ അതിനാത്ത് അതിന് അടുത്തു തന്നെ വേറെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു അപ്പം ആ മരത്തിൻ്റെ ഒരു ചില്ല ഈ തെങ്ങിലേക്ക് തെങ്ങിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പം ആ എന്തോ അത് ആ നിമിഷം എന്നു വച്ചാൽ നമുക്ക് വിവരിക്കാൻ സാധിക്കുന്നതല്ല പുള്ളി ഒറ്റ നിമിഷം കൊണ്ട് ആ മരത്തിൻ്റെ ചില്ലയിലേക്ക് ചാടി ചാടി ആ മരത്തിൻ്റെ ചില്ലയിൽ പിടിച്ച് കൊണ്ട് തിരിച്ച് ആ മരത്തിൽ കൂടെ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരേ നിമിഷം ആശങ്കയും പേടിയൊക്കെ ഉളവാക്കുന്ന ഒരു സംഭവം പക്ഷേ പുള്ളിക്ക് ആ സമയത്ത് ആ ഒരു ധൈര്യം ഉണ്ടായി പുള്ളി ആ ബോൾ എടുത്തു കൊണ്ട് വന്നു ബോൾ എടുത്തതിന് ശേഷം ഞങ്ങൾ കളിച്ചു ആ കളി ഫുള്ള് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ എതിർ ടീമിനെ തോൽപ്പിച്ചു തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ആ അങ്ങനെയുള്ള വളരെ അവിശ്വസിനീയം എന്ന് തന്നെ പറയാവുന്ന ഒരു പാട് സന്ദർഭങ്ങൾ ക്രിക്കറ്റ് മൈതാനവും ഞങ്ങളുടെ സ്പോർട്സ് ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്